എൻ്റെ രണ്ടാമത്തെ പ്രൊഡക്ട് എന്ന് പറയുമ്പോൾ ഹെഡ്സെറ്റാണ് അപ്പം ഹെഡ്സെറ്റിൻറ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ നമ്മള് പാട്ട് കേൾക്കാനും കോൾ ചെയ്യാനും ഒക്കെ ആണ് കൂടുതലായിട്ടും ഇപ്പം ഹെഡ്സെറ്റ് എല്ലാവരും യൂസ് ചെയ്യുന്നത് അപ്പം ഹെഡ്സെറ്റ് എന്താ പറയുക ചെവിയില് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലൂടൂത്തിൻറെ ഹെഡ്സെറ്റ് ആണെങ്കിൽ ഈ സൗണ്ട് നമ്മളുടെ ചെവിയില് കറക്റ്റ് ആയി കേൾക്കും അപ്പം അതാണ് ഒരു ഹെഡ് സെറ്റ് കൊണ്ടുള്ള ഗുണം അപ്പം നമുക്ക് ഹെഡ് സെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാട്ടൊക്കെ കേൾക്കാം പിന്നെ കോൾ ചെയ്യാം അങ്ങനെ ഒരുപാട് കാര്യങ്ങള് ഹെഡ്സെറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ മേടിച്ച ഹെഡ്സെറ്റില് ചാര്ജും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നല്ല രീതിക്ക് തന്നെ നിൽക്കുന്ന ഒരു ഹെഡ്സെറ്റ് ആയിരുന്നു പിന്നെ അതില് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയില് ചാർജ് നിൽക്കുക എളുപ്പത്തിൽ ചാർജ് കയറും നല്ല സൗണ്ടും ക്വാളിറ്റി യും ഒക്കെ ഉള്ള ഒരു സാധനമായിരുന്നു അതിൻ്റെ ഒരു പോസിറ്റീവ് ആയിട്ട് എനിക്ക് പറയാനുണ്ട് പിന്നെ കുറച്ച് നാള് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആണ് ഇതിൻ്റെ നെഗറ്റീവ്സ് ഒക്കെ ഇതാവാൻ തുടങ്ങിയത് കാരണം അതിൻ്റെ വയറൊക്കെ വിട്ടുപോകാൻ ഒക്കെ തുടങ്ങി ഒരെണ്ണത്തില് എന്താ പറയുക ഒരു ചെവിയിലെ സൗണ്ട് കുറഞ്ഞു അത് ക്വാളിറ്റി ഇല്ലാണ്ട് ഉള്ളൊരു പ്രൊഡക്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം അതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ബഡ്ഡ് ഒന്നും വർക്ക് ചെയ്യാണ്ടായി അതിൻ്റെ സൗണ്ട് ഒക്കെ എന്താ പറയുക ഭയങ്കര വിറയലും അങ്ങനെ ഒക്കെ ആയിപ്പോയി അപ്പം അതിൻ്റെ ക്വാളിറ്റിയില് എനിക്ക് അത്ര വലിയ ഇതൊന്നും തോന്നിയില്ല അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായി ഇതാണ് നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്